ഏറ്റവും അപകടമായിട്ടുള്ള ഒന്നാണ് വൈദ്യുതി വൈദ്യുതി നമ്മള് ഇപ്പോൾ ഞാന് ഇന്ന് ഞാന് ന്യൂസ് എടുത്ത് തുറന്നപ്പോൾ കണ്ടത് വന്യജീവിയെ പിന്നെ വന്യ ജീവി വരാതിരിക്കാൻ വേണ്ടി പിന്നെ കറന്റ് ഘടിപ്പിച്ചിട്ട് രണ്ട് ആൺ ചെക്കന്മാര് വരുവും പോലീസിനെ കണ്ട് ഓടി വരും അവര് രണ്ട് പേരും അതിൽ തട്ടി മരിച്ചിട്ട് ആ ഉടമ അവരെ ആ അവരുടെ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടു എന്ന് ഉള്ള ന്യൂസാണ് ഞാൻ കണ്ടത് ഇന്ന് രാവിലെ ന്യൂസ് വെച്ചപ്പോൾ അപ്പോൾ അങ്ങനെ ന്യൂസ് വരുമ്പോൾ നമ്മള് ആലോചിക്കുക ഇങ്ങനെയാണ് വന്യ ജീവിക്ക് വെക്കുന്നത് സാധാരണം അത് അത്രയും ഡേയ്ഞ്ചർ ആയിട്ടുള്ള ഒന്നാണ് വൈദ്യുതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസിലാക്കാൻ പറ്റുന്നത് വന്യ ജീവിയിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ആ രണ്ട്പേരുടെ ജീവൻ പൊലിഞ്ഞു പോയത് അതേ പോലെ തന്നെ നമ്മള് വീട്ടിൽ നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ് വൈദ്യുതി മോസ്റ്റ് ഡെയിഞ്ചറസ് ആണ് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ പ്ലഗ് കുത്തുന്നതും നമ്മള് അതായത് ഫോൺ നമ്മള് ചാർജിനു കുത്തിയിട്ട് കാണുന്നതും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം വൈദ്യുതി എന്ന് ഫോണൊക്കെ ഡെയിഞ്ചർ ആണ് അതേ പോലെ തന്നെ ടീവി പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മള് ഇതാക്കുന്നത് ഏറ്റവും കൂടുതൽ ഷോക്കടിക്കുന്ന ഒരിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സ് ആണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കടിച്ചത് അയൺ ബോക്സിൽ നിന്നാണ് അപ്പം നമ്മൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഉപയോഗിക്കണം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫ് ആക്കി ഇടണം ഫോൺ നമ്മള് റീചാ പിന്നെ ചാർജ് കുത്തുമ്പോൾ ചാർജ് കുത്തി ഇടുക എന്നിട്ട് ചാർജ് ആകുമ്പോൾ നമ്മള് എടുത്ത് കാണുക അല്ലാണ്ട് ചാർജ് കുത്തികൊണ്ട് കാണരുത് അതേപോലെ പിന്നെ അയൺ ബോക്സ് ഷോക്ക് അടിക്കുവാണെങ്കിൽ എവിടെയാണ് പൊട്ടിയിട്ടുള്ളത് അത് നമ്മള് കൊണ്ടുപോയി ക്ലിയർ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധവാനാണെങ്കിൽ നമുക്ക് ഈ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും അതേപോലെ അതാണ് ഏറ്റവും വേണ്ടത് നമ്മള് കറന്റ് കമ്പിയിൽ ഒന്നും കൊണ്ടു പോയിട്ട് ഡ്രസ്സ് ഒന്നും വിരിച്ചിടരുത് അതൊക്കെ ഡെയിഞ്ചർ ആണ്